ഹലോ ഞാനൊരു കർഷകനാണ് വയനാട്ടിലാണ് രണ്ടേക്കർ സ്ഥലമുണ്ട് അതില് ഞാനൊരു ഇൻഷുറൻസ് പോളിസി എടുക്കാൻ തീരുമാനിക്കുന്നത് പക്ഷേ പോളിസി എടുത്ത് കഴിഞ്ഞാല് അതിന് എന്തെങ്കിലും നഷ്ട പരിഹാരം കിട്ടുമോ വയനാട്ടിലായതുകൊണ്ട് ആനയും പുലിയുടെയും കൂടി ശല്യം കൊണ്ട് കൃഷികളെല്ലാം ഒരു നശിച്ചു നശിച്ചുകൊണ്ടിരിക്കുകയാണ് കാപ്പി മുളക് അടക്ക ഒക്കെ ആനകളിങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് എന്തൊക്കെയാണ് അതിന് വേണ്ടത് ആധാറ് കോപ്പിയോ ഐഡന്റിറ്റി കാർഡോ ഇത് എങ്ങനെയാണ് എന്താ എവടെയാണിത് ഇത് ചെയ്യണ്ടത് കൊടുക്കേണ്ടത് ആ ശരി പോരേ